ഹലോ കസാമിയ റെസ്റ്റോറൻറ്റല്ലേ ആ പിന്നെ ഞാൻ ഞായറാഴ്ചക്ക് കുറച്ച് സാധനങ്ങൾ പറഞ്ഞിരുന്നല്ലോ ബിരിയാണി അൽഫാമ് ലേസം കുഴിമന്തി അപ്പോൾ ഞായറാഴ്ചയാണല്ലത് അപ്പോൾ ഞാൻ അച്ചാൻ കമ്പനീല് വീട് വെക്കണുണ്ടായിരുന്നു അവിടെ വീട് പണി തീർന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെന്ന് കൊടകരയാണല്ലാ ഏൽപ്പിച്ചിരുന്നത് അപ്പോൾ ഇവിടുന്നങ്ങട്ട് മാറുകയണ് ഞങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഞാനാ പറഞ്ഞത് സാധനങ്ങൾ പിന്നെ ഞായറാഴ്ചക്ക്ങ്ങട്ട് എത്തിക്കണം അവിടുത്ത അഡ്രസ്സും ആ ഇന്ന സ്ഥലമാണ് എവിടെയാണ് എനിക്കുള്ളത് ഞാനിങ്ങക്ക് വാട്ട്സപ്പ് കൂടെ അയക്കുണ്ടൂട്ടോ അപ്പോൾ അത് അങ്ങട്ടെത്തിച്ചാൽ മതി ഈ ഫോൺ ഈ നമ്പർ ഇതന്നേണേ നമ്പറിന് മാറ്റൊന്നുല്ല അപ്പോൾ ഈ നമ്പറ്ക്ക് ജസ്റ്റൊന്ന് വിളിച്ച് നോക്കൂ അപ്പോൾ ഇങ്ങൾക്ക് സ്ഥലം ഏ എവിടെണ് ഞാൻ നിക്കണേന്നുള്ള ഒക്കെ ഞാൻ വാട്ട്സ്ആപ്പ് കൂടെ വിട്ടേരാട്ടോ